നല്ല സുഖമാണ് ഇതിൽ കിടക്കാൻ ഞാൻ ആശിച്ച് മേടിച്ചതാണ് ഈ ഒരു കിടയ്ക്ക നല്ല സുഖമുണ്ട് നല്ല സോഫ്റ്റ്നസ് ഉണ്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് നല്ല കൂളിങ്ങ് ഉണ്ട് ഇപ്പം ചൂടുകാലം ആണ് ഇപ്പം ചൂടുകാലത്തൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് ഇപ്പം മഴക്കാലത്ത് ആണെങ്കിൽ തന്നെ പുതപ്പ് ഒക്കെ പുതച്ച് കിടക്കുമ്പോഴത്തേക്കും നല്ല നന്നായി ഉറക്കം കിട്ടുന്നുണ്ട് രാവിലെ ആകുമ്പോൾ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല നമുക്ക് അലറാം ഒക്കെ വച്ചിട്ട് വേണം എണീക്കാൻ എത്ര നല്ല ഉറക്കം കിട്ടുന്നുണ്ട് നല്ല ഫ്രഷ്നെസ്സ് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു പ്രോഡക്ട് ആണ് ഞാൻ ഇത് എല്ലാവർക്കും റെക്കമെന്റ് ചെയ്യുക തന്നെ ചെയ്യുന്നു നല്ല കിടക്കയാണിത്